ഇപ്പോൾ പലചരക്കളുടെയും പച്ചക്കറികളുടെയും വിലയില് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഗുണമേന്മയുള്ള പലചരക്കുകളും പച്ചക്കറികളും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല

പക്ഷേ

നമുക്ക് ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് നല്ലതാണോ പൊട്ടയാണോന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളു

അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലേക്ക് പോകേണ്ട അതിനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് വേണ്ട അതിന് വേണ്ടി വരുന്ന സമയം നമുക്ക് ലാഭമാണ് അതൊക്കെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ വളരെ വലിയൊരു ഗുണമാണ്

ഓൺലൈൻ ഷോപ്പിങ്ങിൽ കൂടെ സാധനങ്ങൾ വാങ്ങി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഹരമായിട്ട് തന്നെ മാറുന്നുണ്ട് മദ്യവും മയക്കുമരുന്നും പോലെ തന്നെ ഒരു അഡിക്ഷൻ ആളുകൾക്ക് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനോട് വരുന്നുണ്ട് അത് ഇന്നത്തെ യുവതലമുറയ്ക്കും ഈ നമ്മുടെ ഇന്ന് യുവതലറ തലമുറ എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ അ ഒരു ജനറേഷനിൽ മൊത്തത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അത് വളരെ നമുക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വരെ വരുന്ന വേണ്ടി വരുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്